കാലക്രമേണ ബ് മലയാള ഭാഷയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എല്ലാ എഴുത്ത് പ്രിൻറിങ്ങ് ഭാഷകളിൽ എല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എഴുത്ത് ഭാഷ നം സംസാര ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് ഓരോ ജി ചെല സ്ഥല മലബാര് മേഖലകളിൽ സംസാരിക്കുന്ന രീതിയിലല്ല ഇപ്പം നമ്മുടെ തെക്കന് മേഖല തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ സംസാരിക്കുന്നത് അപ്പം അതിനകത്ത് ചില സംസാരത്തിൽ അന്ന് പണ്ടൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഒട്ടും മനസ്സിലാവുന്ന രീതി പോലും അല്ലായിരുന്നു അവിടെ നിന്നുള്ളവർ ഒരു നീട്ടിയും കുറുക്കിയും ഉള്ള സംസാരം ഇവിടെ കൊല്ലം ജില്ലയിലൊക്കെ സംസാരിക്കുന്നവർ നല്ല രീതിയിൽ സം മലയാളം പറയുന്നുണ്ട് അപ്പം എഴുത്ത് ഭാഷയിലും ഇപ്പം എന്നാ വ്യത്യാസങ്ങളൊന്നും ഇല്ല താനും ഇപ്പം പ്രിന്റിങ്ങ് എല്ലാം ശരിയാക്കി വന്നിട്ടുള്ളത് കൊണ്ട് എല്ലാം ഇപ്പം നല്ല അച്ചടി ഭാഷ ശരിയായിട്ടും വന്നിട്ടുണ്ട് അപ്പം അത് എല്ലാവര്ക്കും ഒരേ പോലെ ആണ് ഇപ്പം അച്ചടി ഭാഷ അതിനകത്ത് ഒരു നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ സംസാര ഭാഷയിലുള്ള വ്യത്യാസങ്ങൾ ഓരോരോ ജീ വം ബാ ബി പരമ്പരാഗതമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ കേട്ട് പഴ തി കേട്ട് പഴകി അങ്ങനെ തന്നെ വീണ്ടും അത് ആവര്ത്തിച്ച് കൊണ്ടിരിക്കുന്നു അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒക്കെയേ ഉള്ളൂ ഒരാളെ വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പം അതനുസരിച്ച് ഇപ്പം എന്തായാലും പ്രിന്റിങ്ങ് എല്ലാം ഇപ് അതുകൊണ്ട് എല്ലാവര്ക്കും വായിക്കാനും എഴുതാനും കഴിയുന്നത് ഒരേ ഭാഷയിൽ തന്നെയാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അതിപ്പം എല്ലാ ജില്ലകളിലും അത് ഒരു ശരി ആയിട്ട് അത് പോവുന്നുണ്ടത് പറ